കഴിക്കാൻ ഏന്തൊക്കെയൊണ്ട് വെറൈറ്റി കഴിക്കാൻ ആദ്യം എടുക്ക് കഴിക്കാൻ എടുക്ക് ഒരു മുട്ട പപ്സ് എടുക്ക് ആ ഒരു ചായയും സാധാ ചായ ഒരു മസാല ചായ എതു മസാല ഇട്ട ചായ എടുക്ക് ഇപ്പം കഴിക്കാൻ ഒരു ഇല അപ്പം എടുത്തോ അത് അപ്പം ഒരു അഞ്ചെണ്ണം പാർസൽ ചെയ്തോ ആ മുട്ട പപ്പ്സ് മതി ഓ ഓ ഓ അതും എടുത്തോ ഒരു മൂന്നെണ്ണം എടുത്തോ ഓ ഓ തൊണ്ണൂറ്റിയഞ്ചാണോ അത് ഗൂഗിൾ പേ ചെയ്തോ ഗൂഗിൾ പേ ചെയ്യാം ആ ശരി ഓക്കെ